ഞാൻ ഒരിക്കൽ വരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരച്ചിട്ടുണ്ട് ഞാൻ വരച്ചത് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ സ്വീകരണ മുറിയിലെ കർട്ടൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ആ കർട്ടൻ വെറുതെ ഇരിക്കുകയാണ് ഒരു അവിടത്തെ കുഞ്ഞ് എനിക്ക് ഒരു പെന്നും ഒരു പേപ്പറും ഞാൻ ചുമ്മ ഇരുന്നു വരച്ചു അൺഎക്സ്പെക്ടഡായിരുന്നു ഞാൻ അത് അതിങ്ങനെ വരച്ചു ആ ഒരു ഭിത്തിയിലുള്ള ഡ്രോയിങ്ങ് അത് ഞാൻ അവിടെ അവർ പ്രിൻ്റ് എടുത്തിട്ട് എന്തൊക്കെയോ ഒട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് അന്ന് എനിക്ക് വരക്കാൻ സാധിച്ചു അപ്പം അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അവരു വർത്തമാനം പറയുന്നു ഞാൻ വരക്കുന്നു വരച്ചു കഴിഞ്ഞപ്പം ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഒരു പേപ്പർ വാങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയമ്മേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ നോക്കട്ടെ നോക്കട്ടെയെന്ന് പറഞ്ഞു വാങ്ങി അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ കണ്ടപ്പം എനിക്ക് അവർ എന്താ പറഞ്ഞത് ഓ ഇത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയാമല്ലോയെന്ന് പറഞ്ഞ് അവരെന്നെ എന്താ പറയുകയ നമ്മളെ ആശംസകൾ അവരുടെ രീതിയിൽ പറയുമല്ലോ നന്നായിട്ടുണ്ട് വരച്ചത് നല്ല കഴിവുണ്ടല്ലോ വരയ്ക്കാൻ അങ്ങനൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് നമ്മൾ വരച്ചതവിടെ അപ്രീഷിയേഷ് അവർ നമ്മളെ സ്വീകരിക്കുന്നു നമുക്കൊരു കഴിവുണ്ടെന്ന് അംഗീകരിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്